എല്ലാ അടുക്കളയിലേയും പോലെ തന്നെ എല്ലാ നാട്ടിലെ വീടുകളേമ് പോലെ തന്നെ പല തരത്തിലുള്ള പാത്രങ്ങള് തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലും അടുക്കള ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം അതില് ഏറ്റവും കൂടുതല് ഉപയോഗമുള്ളൊരു പാത്രമെന്ന് പറയുന്നത് ചോറ് വയ്ക്കുന്ന കലമാണ് എല്ലാ വീടുകളിലേയും പോലെ തന്നെ നമ്മുടെ വീട്ടിലും ചോറ് വെക്കുന്നത് കലത്തിലാണ് അപ്പം ചോറ് വച്ച് കഴിഞ്ഞാൽ അതൂത് ഊറ്റിയെടുക്കുന്നതിനായിട്ടൊരു ഊറ്റുകയില് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങള് പല എന്താ പറയുക വ്യത്യസ്തങ്ങളായിട്ടുള്ള ആകൃതിയിലുള്ള പാത്രങ്ങളുപയോഗിക്കുന്നുണ്ട് പിന്നത് കറിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിക്കലമല്ലാതെ കറി ഒഴിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ടൊരു പാത്രം കറി എടുക്കുന്നതിനായിട്ട് കയിലുകളല്ലങ്കില് നാട്ടിലെ ഭാഷയിലതിനെ കൂടുതലുകളെന്ന് പറയും അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പിഞ്ഞാണങ്ങള് അച്ചാറിട്ട് വയ്ക്കുന്ന ചെറിയ പാത്രങ്ങള് അങ്ങനെ പല തരത്തിലുള്ള വസ്തുക്കള് നമ്മൾ അല്ലെങ്കിൽ പല തരത്തിലുള്ള പാത്രങ്ങള് നമ്മളൊരു കുടുംബത്ത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് എന്താ പറയുക നമ്മള് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണം വെക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയുക നമ്മൾ ഉപയോഗിക്കുന്ന പല തരം പാത്രങ്ങള് ഉണ്ടായിട്ടില്ല വറവിടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കുഴി ഉള്ള പാത്രങ്ങള് വറവിടുന്ന അതായത് വറവിടുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മള് കടുക് പോലുള്ള് കാര്യങ്ങള് പൊട്ടിച്ചിട്ട് നമ്മള് നമ്മള് ഉപയോഗിക്കുന്ന കറികളില് ഉപയോഗിക്കും അപ്പം അതിന് വേണ്ടിയിട്ടങ്ങനെ വറ വറവിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങളുണ്ട് പായസം വെക്കാനുള്ള ഉരുളി ഉണ്ട് അങ്ങനെ പല തരത്തിലുള്ള പാത്രങ്ങള് എല്ലാ വീടുകളിലേയും പോലെ തന്നെ നമ്മുടെ വീടുകളിലും ഉപയോഗിക്കുന്നുണ്ട്